ഹലോ ആരാ വിളിക്കുന്നേ

ഇല്ല അവൻ അവൻ പത്താം ക്ലാസിലാണ് പഠിക്കുന്നെന്നല്ലെ പറഞ്ഞെ ആ അപ്പോള് നിങ്ങള് വീട്ടുകാര് ഇങ്ങനെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറാൻ പാടുണ്ടോ പത്താം ക്ലാസ്സില് പഠിക്കുന്ന ഒരു കുട്ടീനെയുംകൊണ്ട് നാലു ദിവസത്തെ അവധിയെടുത്ത് ടൂര് പോകേണ്ട കാര്യമുണ്ടോ അവധി ദിവസങ്ങളില് പോകത്തില്ല സ്കൂൾ അവധികളുണ്ടല്ലോ ഡിസംബറിൽ അവധിയുണ്ട് ഓണത്തിന് അവധിയുണ്ടായിരുന്നു അന്നേരം ഒന്നും പോകാതെ സ്കൂൾ ടൈമിൽ തന്നെ പോകാൻ എന്താ നിങ്ങള് അങ്ങനെയൊരു തീരുമാനം എടുക്കാൻ കാരണം മകൻ മകൻ്റെ പേരെന്താ ഫുൾ നേയ്മെന്താ ജോസഫ് വർഗീസ് അവൻ്റെ നേരത്തത്തെയുള്ളെ പിന്നെ അവൻ്റെ മാ എങ്ങനെയുണ്ടായിരുന്നു പഠിത്തത്തില് പൊതുവെ

അപ്പോള് അപ്പോള് അതെ ഇപ്പോള് അന്നേരം ഇപ്പോള് ഫാദറിപ്പോള് വന്നപ്പോള് ഫാദറിന് അവധിയില്ലെന്നാണോ പറയുന്നത്

ആഹാ നോട്ട്സൊക്കെയോ ആ ആ പക്ഷെ എന്നാ എനിക്ക് അത്ര എനിക്ക് അത്ര ഒരു സന്തോഷമാവില്ല ഞങ്ങള് ഞാനങ്ങനെ സാധാരണ അനുവദിക്കാറില്ല കാരണം അങ്ങനെ ഒരാളെ അനുവദിച്ചുകഴിഞ്ഞാല് പിന്നെ അതൊരു ഒരു പിള്ളേര് അങ്ങനെ പലരും വന്നു ചോദിക്കും അപ്പൊ അപ്പോള് എനിക്ക് നോ പറയാൻ ഒക്കത്തില്ലാത്തൊരു സാഹചര്യം വരും അതിനെ കുറിച്ച് ഏ അങ്ങനെയൊരു പ്രശ്നമുണ്ട് മനസിലായോ പക്ഷെ ഒരു ഇതൊരു ഇതൊരു ഞാൻ പറയട്ടെ അപ്പോള് നിങ്ങള് ഇങ്ങനെയൊരു സാഹചര്യം പറഞ്ഞതുകൊണ്ട് ഫാദർ വന്നിട്ടുണ്ട് ഒരാഴ്ചയ്ക്കകം പോകണമെന്നു പറഞ്ഞതുകൊണ്ട് പക്ഷെ അത് ഒരു പബ്ലിക് ആക്കരുത് മറ്റെന്തെങ്കിലും ഇങ്ങനെ അതായത് ഇങ്ങനെ ടൂര് പോകുവാണെന്നൊന്നും പറഞ്ഞ് പോകരുത് വേറെന്തെങ്കിലും കാരണം പറഞ്ഞ് അവൻ നാലു ദിവസം വരാതിരിക്കാവുള്ളു കേട്ടോ അല്ലെങ്കിൽ പിന്നെ വേറൊരാളും വരും അങ്ങനത്തെ അതൊക്കെ അന്നേരം വന്നിട്ട് പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ വരണം അല്ലേൽ ക്ഷീണമാണെന്നു പറഞ്ഞ് വീണ്ടും അവധി എടുത്തേക്കരുത് ആ ഓക്കെ ആ അപ്പോള് നാലാം തീയതി തിരിച്ചു വരുമല്ലോ അഞ്ചാം തീയതി സ്കൂളില് കാണണം ആ അപ്പോള് എല്ലാം നോട്ട്സൊക്കെ എഴുതി എടുത്തോളാന് പറയണം കേട്ടോ ആ ആ ആ ആ കൊച്ചിന് മ് കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങള് അവന് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ കുഴപ്പമൊന്നുമില്ലാത്ത ആ അവൻ്റെ അവൻ്റെ ആരോഗ്യം ഒക്കെ സൂക്ഷിക്കണം അല്ലേൽ വന്ന് കഴിയുമ്പോള് അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞേക്കരുത് ആ ഓക്കെ ഓക്കെ